ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉപകാരമുള്ളത് ഡ്രസ്സുകൾ തന്നെയാണ് അതായത് അനുദിന ജീവിതത്തിന് ഓരോത്തർക്കും ഉപകരിക്കുന്ന ഡ്രസ്സതൊക്കെ അതാണ് കൂടുതൽ സാരീ ബനിയൻസ് കുട്ടികൾ ഉടുപ്പ് ഉള്ള തുണികൾ ജീൻസ് അങ്ങനെ അനുദിന ആവശ്യങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെയോ തുണികൾ വേണം അതാണ് കൂടുതലും നെയ്യുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർക്ക് സാരിക്കെട്ട് കോണം സാരി ഉടുത്തൊരു സ്ത്രീ എപ്പോഴും വളരേ ഭംഗിയുള്ളതും മനോഹരവുമാക്കുന്നു അതു പോലെ കുട്ടികൾക്ക് ഉടുപ്പും ചുരിദാർ സൽവാർ വിവാഹ ഡ്രസ്സുകളാണ് വളരെ പ്രയോജനത്തിൽ മാറുന്നു ഇപ്പം കൂടുതൽ നെയ്യിൽ നിന്ന് നെയ്തെടുക്കുന്ന കൈത്തറി സാധനങ്ങൾ മലയാളികളുടെ ഡ്രസ്സ് എന്നുള്ള രീതിയിൽ കൈത്തറി തുണികൾ കൂടുതലും ഉപയോഗിക്കുകയും അതിനോട് മലയാളികൾക്ക് കൂടുതലിഷ്ടം തോന്നും കൈത്തറി തുണികൾ ഉള്ളിൽ ചൂട് കുറയ്ക്കുന്നതും പിന്നെ ഉടുക്കാനായിട്ട് എപ്പോഴും ശരീരത്തിന് ഇണങ്ങുന്നതുമായ വസ്ത്രങ്ങളാണ് ഇപ്പോഴും കോട്ടൺ തുണിയാണ് കാരണത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിയ്ക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കൂടുതൽ സിൽക്ക് പോളിസ്റ്റർ ഈ വക നൂലുകൾ ശരീരത്തിനു കൂടുതൽ ചൂടും മറ്റ് അലർജി മറ്റ് ശാരീരിക പ്രശ്നങ്ങളുണ്ടാക്കുകയും പലർക്കും ചൊറിച്ചിൽ ഈ വക പ്രശ്നമുണ്ടാകാനിയ അപ്പം കോട്ടൺ കൂടിയ തുണികളാണ് കൂടുതലും മനുഷ്യൻ എന്നും തിരഞ്ഞെടുക്കാറ് അവയാണ് നെയ്ത് അവനവൻ്റെ ഉപജീവനം അഭിരുചിക്കനുസരിച്ച് കൊടുക്കാറുമുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതലും അവരുപയോഗിക്കുന്നത് പ്രത്യേകിച്ച് പെൻഷൻ വിവാഹ വേളകളേറ്റവും കൂടുതൽ ഉടുക്കാറ് സാരി തന്നെയാണ് പിന്നേ ഇപ്പോൾ ഇപ്പോഴത്തെ ആധുനിക കാലത്ത് പുതിയ മോഡേൺ ഡ്രസ്സുകൾ കയറി വരുന്നുണ്ട് അത് കൂടുതലും ഇപ്പം എല്ലാവരും തന്നെ എപ്പോഴും യാത്ര ചെയ്യാനെളുപ്പവും ഉപയോഗിക്കാനും സുരക്ഷിതവുമായ ഡ്രസ്സുകളാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ കാലയളവിൽ പ്രത്യേകിച്ച് നമ്മളെന്നു പറഞ്ഞാൽ ഓട് ഇപ്പം സാരി വളരെ പ്രത്യേക ചടങ്ങുകളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ചുരിദാർ അതുപോലെയുള്ള കംഫർട്ടായ ഡ്രസ്സ്കളാണ് എപ്പോഴും കൂടുതൽ ഉപയോഗിക്കാറ് കുട്ടികൾ ജീൻസ് ബനിയൻ സ്കേർട്ട് ഫ്രോക്ക് അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം അതവർക്ക് അവരുടെ ശരീരത്തിന് ഇണങ്ങുന്നതും കാണാനെപ്പോഴും മനോഹരവുമാക്കുന്ന ഡ്രസ്സുകളാണ് കൂടുതൽ പഴയ രീതിയിലുൾ ചർക്ക നിൽക്കുകയും മനുഷ്യൻ കൈ കൊണ്ടു മാത്രം നിർമ്മിക്കുന്ന ഡ്രസ്സുകൾ ആണ് ഉപയോഗിക്കുന്നിരിക്കുന്നത് ആ ഒരു മാർഗ്ഗമിന്നും കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ഒരു ജോലികളാണ് മനുഷ്യൻ ഉപജീവന മാർഗ്ഗം നൽകും എന്നാലും അവരുടെ വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് ഇന്ന് ആധുനിക രീതിയിൽ മഷീൻ ഉപയോഗിച്ചുള്ള നൂലു നെയ്ത്ത് വളരെ പ്രയോജനമാണ് അതു പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും സ്പീഡിലും വർക്ക് ചെയ്തു കൂടുതലും തുണികൾ നെയ്ത് ഉൽപാദിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പഴയ രീതിയിൽ ലോകം ഒരുപാട് പുരോഗമിച്ചതു കൊണ്ട് ഏതു രീതിയിലോ വസ്ത്രങ്ങളും ഏതു രീതിയിലും നെയ്തെടുക്കാനായിട്ടും അത് ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുവാനും കൊണ്ടു പോകാനായിട്ടും ഇന്ന് ഇന്ന് ഒരു ആധുനികമായ ഒരുപാടു മാർഗ്ഗങ്ങൾ ഇന്ന് സമൂഹ നാട്ടിൽ നിലനി നിലവിലുള്ളൂ ആ ഒരു രീതി അനുസരിച്ച് ആളുകൾക്ക് വിൽക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു